കേരളത്തിൽ എന്നു പറയുമ്പോൾ പല തരത്തിലുള്ള കായിക കാര്യങ്ങൾക്കായിട്ട് കേരളത്തിൽ നിന്നും പലരും പുറത്തു പോയിട്ടുണ്ട് ഉദാഹരണം എന്നു പറയുമ്പോൾ പിടി ഉഷ പുള്ളിക്കാരിത്തി പറയുമ്പോൾ അവരുടെ മേഖല എന്ന് പറയുമ്പോൾ ഓട്ടം അങ്ങനെ ഉള്ള കാര്യങ്ങള് സ്പോർട്സിനാണ് പിന്നെന്നു പറയുമ്പം ഇപ്പോൾ മെയിനായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എല്ലാരും ഫുട്ബോള് ക്രിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടാണ് പോയിട്ടുള്ളത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഇപ്പോൾ ഐഎസ്എൽ നടക്കുന്നുണ്ട് ഈ ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന ഈ പി രാഹുല് രാഹുൽ എന്നു പറയുമ്പം കേരളത്തിലുള്ളതാണ് അവരിപ്പം കളിക്കുന്നത് ഇപ്പം എന്നു പറയുമ്പം ഐഎസ്എൽ കേരളം ബ്ലസ്റ്റേഴ്സിൻ്റെ ടീമില് അതേപോലെ സഹല് സഹലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലായിരുന്നു അവരുന്നൊക്കെ പറയുമ്പം ഈ ഫുട്ബാൾ എന്നു പറയുമ്പം നമ്മുടെ നാട്ടിന്നു പോയിട്ട് അത്രെയും നല്ലൊരു നിലയിലെത്തി എന്ന് പറയുമ്പം അത്രെയും വലിയൊരു നല്ലൊരു ടീമില് ചേർന്ന് നമ്മുടെ നാടിനു വേണ്ടിട്ട് കളിക്കുന്നു അങ്ങനെ ഒരു ഇതൊക്കെയില്ലേ അതേപോലെ അങ്ങനെ പലരും പല രീതിക്കും ഉള്ള കാര്യങ്ങൾ സ്പോർട്സിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് ഉദാഹരണം പറയുമ്പോ ഇവര് രണ്ടു പേരുമാണ് പിന്നെ അങ്ങനെ പലരും ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സ്പോർട്സിൻ്റെ കാര്യങ്ങൾക്ക് പോയിരിക്കുന്നെ ഈ ക്രിക്കറ്റിൻ്റെലു പോയിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഫുട്ബോള് പിന്നെന്നു പറയുമ്പോൾ കായികമേള അങ്ങനെയുള്ള പലതിനും പലതിനും പലരും പോയിട്ടുണ്ട്